നിങ്ങളുടെ അവിടുന്ന് ഒരു ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കൊണ്ട് വന്നത് താമസിച്ച് തന്നെയാണ് കൊണ്ടുവന്നത് അത് കൊണ്ടുവന്ന രീതിയും ശരിയല്ലായിരുന്നു നമ്മളോട് കാര്യങ്ങള് പറഞ്ഞ് അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ബില്ലൊക്കെ ചോദിച്ചപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇതിൻ്റെ നമുക്ക് പരാതി കൊടുക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് പറയുവോ പിന്നെ എന്താണെന്ന് അറിയുമോ നമ്മള് കൊണ്ട് വന്നത് താമസിച്ചാണെന്ന് പുള്ളിക്കും അറിയാമായിരുന്നു ഞങ്ങളത് പറയുകയും ചെയ്തു നമ്മള് പറയുന്ന സമയത്തെക്കാളും പതിനഞ്ച് മിനുട്ടോളം താമസിച്ചു അത് വന്നിട്ട് അതിനൊരു സോറി പറയാനോ ഒന്നും ആള് തയ്യാറല്ലായിരുന്നു അപ്പോൾ ഞങ്ങളതിന് ബില്ല് ചോദിച്ചിട്ട് അതും കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങള് പറയുന്നില്ലായിരുന്നു ആള് അപ്പോൾ അതെങ്ങനെയാണ് ഇപ്പോൾ ഇത് ഡെലിവറി ചെയ്ത ആൾക്കെതിരെ നമുക്ക് പരാതി കൊടുക്കണം എന്താണ് അതിന് വേണ്ടത് എന്നുള്ളത് ഒന്ന് പറയാമോ